ഹലോ ഹലോ ആരാണ്

അത് അതുകൊണ്ടാണ് കേരളത്തിന് കേരളം എന്ന പേര് ലഭിച്ചത് തന്നെ കേരളം എന്ന തെങ്ങിൻ്റെ മലയാളം പേരാണ് കേര കേട്ടോ മാഡത്തിന് മനസ്സിലായോ ആ തെങ്ങ് കേരളം എന്ന് പറഞ്ഞാൽ കേരളം അതിന് കേരളം കേരകളുടെ നാടാണ് കേരളം ആ തെങ്ങുകളുടെ നാട് തന്നെയാണ് കേരളം കേരളത്തിലെ തെങ്ങ് തെങ്ങിൽ നിന്നും ഉണ്ടാകുന്ന തേങ്ങ നിങ്ങളത് അമേരിക്കയിലൊക്കെ കോക്കനട്ട് എന്ന് പറയും ഈ തേങ്ങ ഏറ്റവും ഉപയോഗപ്രദമാണ് അത് ഭക്ഷണത്തിന് ഉപയോഗിക്കും എണ്ണയ്ക്ക് ഉപയോഗിക്കും തെങ്ങിൻ്റെ എണ്ണ തേങ്ങയുടെ വെളിച്ചെണ്ണ എന്നാണ് പറയുന്നത് ആ എണ്ണ നമുക്ക് കൊളസ്ട്രോളോ അങ്ങനെയൊന്നും വരുന്നതല്ല തേങ്ങയുടെ എണ്ണ അത് നമ്മൾ തന്നെ പിന്നെ തേങ്ങ ഉണക്കി ആട്ടി എടുക്കുന്നതാണേ ആ കേരളം തെങ്ങുകളാൽ കേരള കേരങ്ങളാൽ ഫലഭൂയിഷ്ടമായ ഒരു സ്ഥലമാണ് ആ അ ഒരുപാട് ഇനങ്ങൾ ഉണ്ട് മൂന്ന് മാസം നട്ടിട്ട് പതിനെട്ട് മാസം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുകൾ ഉണ്ട് പതിനെട്ട് മാസത്തെങ്ങ് എന്ന് പറയും പിന്നെ കരിക്കിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന തെങ്ങുകളുണ്ട് കരിക്ക് നമ്മൾ കരിക്ക് നല്ല ചെന്തെങ്ങ് കരിക്ക് വെട്ടാൻ വേണ്ടിയിട്ട് മാത്രം പല ഇനത്തിലുള്ള തെങ്ങുകളുണ്ട് പിന്നെ ആർ ആർ എ എ ആർ എ അങ്ങനെ ഒത്തിരി ഇനങ്ങളിലുള്ള തെങ്ങുകളുണ്ട് കൊന്നത്തെങ്ങ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈറ്റിൽ വളരുന്ന തെങ്ങിനെയാണ് ഈ കൊന്ന തെങ്ങെന്ന് പറയുന്നത് പണ്ടുള്ള കാലത്ത് ആ തെങ്ങൊക്കെയായിരുന്നു നട്ടുകൊണ്ടിരുന്നത് ഇപ്പം ശാസ്ത്രം വളർന്നപ്പോൾ തെങ്ങുകളൊക്കെ ബഡ് ആക്കി തെങ്ങുകളൊക്കെ പുതിയ രീതിയിൽ ഉത്പാദനശേഷി കൂടുതലുള്ള തെങ്ങുകൾ ഉണ്ടാകുന്നുണ്ട് പണ്ടുള്ള തെങ്ങുകളിലൊക്കെ ഒത്തിരി കീടബാധകളും വണ്ടിൻ്റെ ശല്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനെയൊക്കെ മാറ്റി മികച്ചതായ തെങ്ങുകൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്

താങ്ക് യു മാഡം താങ്ക് യു താങ്ക് യു ഓക്കെ ബൈ ഓക്കെ